കിൻഡിൽ പോലെയുള്ള ഉപകരണങ്ങളിൽ വായിക്കാറ് കുറവാണ് എങ്കിലും അതിനകത്ത് ബുക്ക് മാഗസീൻ ന്യൂസ്പേപ്പർ ഒക്കെ വായിക്കാനായിട്ടു സാധിക്കും പക്ഷേ ഹാർഡ് കോപ്പിയെന്നു പറയുമ്പോഴത്തേക്കും നമുക്ക് ന്യൂസ് പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സമയം കണ്ടെത്തിയതും വായിക്കും അതുകൊണ്ട് ഇതിനകത്തു സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്തു വിടും അതുപോലെ മാഗസീനാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു മാഗസീൻ ഹാർഡ് കോപ്പി കിട്ടുമ്പം നമ്മൾ ആ മാഗസിൻ ഓരോന്നും പ്രത്യേകം പ്രത്യേകം വായിച്ചു വായിച്ചു പോകും പക്ഷേ അത് ഉപയോഗിക്കാനായിട്ട് സൂക്ഷിക്കാണിച്ചിരി ബുദ്ധിമുട്ടാണെന്നേ ഉള്ളു പിന്നെ ന്യൂസ് ബുക്ക് ബുക്കുകൾ ധാരാളമായിട്ട് നമുക്കിപ്പം യാത്ര പോകുമ്പാഴാണെങ്കിലും ബുക്കുകൾ വായിക്കണമെന്നുണ്ടെങ്കിൽ കിൻഡിൽ പോലെയുള്ള ഉപ എന്നാൽ ഉപകരണങ്ങൾ തന്നെ വേണം പക്ഷേ ബുക്കുകൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ബുക്കുകൾ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം കയ്യിൽ കുറച്ച് ബാത്റൂമിൽ ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ കിൻഡിലിനു ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു എല്ലാ മാത്രമെടുത്താൽ മതി ഇതാകുകുമ്പോഴത്തേക്കും ഹാർഡ് കോപ്പി ആകുമ്പോഴത്തേക്കും അതിൻറ്റേതായ ബുദ്ധിമുട്ടുണ്ട്